ഞങ്ങളുടെ പ്രദേശത്ത് ഹൗസിംഗ് കോളനിക്കാർ റോഡിൽ രണ്ട് വശത്തും മരങ്ങളും ചെടികളൊക്കെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ധാരാളം മരങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ ധാ നമുക്ക് ധാരാളം തണൽ കിട്ടുകയും വീടിന് ചുറ്റും മരങ്ങൾ വെച്ചു പിടിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് വീടിനകത്തിരിക്കുമ്പോൾ ഫാനിൻ്റെയൊന്നും ആവശ്യമുണ്ടാവില്ല ധാരാളം തണലും തണുപ്പൊക്കെ നമുക്ക് കിട്ടും അതുപോലെതന്നെ മണ്ണൊലിപ്പ് തടയാനും മരം വെച്ചുപിടിപ്പിക്കുന്നത് കൊണ്ട് സാധിക്കും പിന്നെ ഒരുപാട് പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കുന്നുണ്ട് മരം റോഡ് സൈഡുകളിലെല്ലാം വെച്ച് പിടിപ്പിക്കാൻ വേണ്ടീട്ട് പിന്നെ ആണെങ്കിൽ എനിക്ക് മരം മുറിക്കുന്നതിനോട് ഒട്ടും അഭിപ്രായമില്ല എനിക്കത് തീരെ ഇഷ്ടവില്ലാത്തൊരു കാര്യമാണ് നമുക്ക് ഇത് മുറിക്കുന്നത് കൊണ്ട് നമ്മുടെ തണലും നഷ്ടപ്പെടും തന്നെയല്ല മരങ്ങളിലൊക്കെ ധാരാളം പക്ഷികളും ചെറു ചെറു മൃഗങ്ങളെല്ലാം കൂടു വെക്കുന്നുണ്ട് അവരുടെ കൂടും അവരുടെ താമസ സ്ഥലമൊക്കെ അവർക്ക് നമ്മൾ മരം മുറിക്കുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്